ഹലോ ആ എനിക്ക് കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങൾ കാണണം എന്ന് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാനിപ്പോൾ വയനാട് അല്ല എനിക്ക് കോഴിക്കോടും കണ്ണൂർ ഞങ്ങൾ പത്ത് പേരുണ്ടാവും

അതെ അതെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം

ഈ മാസം ഇരുപതിനൊക്കെ ആയിട്ട്

ഓക്കേ ഓക്കേ

ആ ഓക്കേ ഓക്കേ